ഞാന് വായിച്ചൊരു പുസ്തകമായിരുന്നു ഒ ചന്തുമേനോൻ്റെ ഇന്ദുലേഖ എന്ന പുസ്തകം എന്നെ ഒരുപാട് സ്പർശിച്ചൊരു പുസ്തകമായിരുന്നു അപ്പോൾ നായർ നമ്പൂതിരി സമുദായങ്ങളുടെ ഇടയിലുള്ളൊരു മരുമക്കത്തായം ജാതിവ്യവസ്ഥയും നമ്പൂതിരിമാര് പല വേളികൾ കഴിക്കുന്ന സമ്പ്രദായമൊക്കെയായിരുന്നു അപ്പോൾ അത് ഒരുപാടെന്നെ വായിച്ചപ്പോൾ ഒരുപാട് സ്പർശിച്ചു പെട്ടന്നു തന്നെ ഞാന് വികാരഭരിതയായെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതെന്നു പറയുമ്പോൾ ഇന്ദുലേഖ മാധവൻ തമ്മിലുള്ള രണ്ടുപേരുടേയും പ്രണയം ഒരു ലവ് സ്റ്റോറിയാണ് അതിനു ആദ്യത്തെ ലക്ഷണമൊത്ത ആദ്യ മലയാള നോവലായിരുന്നു അപ്പോൾ ശരിക്കും നോക്കാണ് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ നില നിന്നിരുന്ന ഓരോ മറ്റു കാര്യങ്ങളും നായർ സമുദായങ്ങളിലായിക്കോട്ടെ എന്താ പറയുക അന്നത്തെ കാലത്ത് കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന മറ്റും ആചാരങ്ങളും മറ്റും നോക്കുന്ന സമയത്ത് ഒരുപാട് എനിക്കൊരുപാട് വിഷമം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പണ്ട് സ്ത്രീകള് നായർ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകള് ഒരുപാട് എന്താ പറയുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇണ്ടായിരുന്നു സമൂഹത്തിലെന്നെ ഉയർന്ന വിഭാഗത്തിപ്പെട്ട ആൾക്കാരായിട്ട് പോലും സ്ത്രീകൾക്ക് അവരുടെ എന്താ പറയുക തറവാടുകളില് അവർക്ക് തളച്ചപ്പെട്ട രീതിലാണ് അവരുടെ ജീവിതം ഉണ്ടായിരുന്നത് ഒരുപാട് എന്താ പറയുക നമ്മളൊക്കെ ചിന്തിക്കേണ്ട രീതി നമ്മൾ ഇന്നനുഭവിക്കുന്ന രീതിലുള്ള സ്വാതന്ത്ര്യമൊക്കെ ആലോചിക്കണ സമയത്ത് ചെയ്യണ സമയത്ത് നമ്മള് അവരുടെ ആ ഒരു അവസ്ഥ തീർച്ചയായും ആലോചിക്കേണ്ടതാണ്